എക്സ്ക്യൂസ് മി ഒരു മിനിറ്റേ ആ പറഞ്ഞോളു ആരാണ് ആ എന്തായിരുന്നു നാളെ ആറു മണിയാകുമ്പോൾ രാവിലെ ആറു മണിക്ക് വേണ്ട വേണ്ട വെള്ളമെടുത്തോളൂ പിന്നെ ജേഴ്സിയുണ്ടൊ ജേഴ്സി തന്നിരുന്നോ ഇവിടെനിന്ന് തന്നില്ലേ ഓക്കെ എക്സ്ട്രാ ഒരു രണ്ട് ബൂട്ടും കൂടി എടുത്തോളൂ ഓക്കെ ഓക്കെ അല്ലേ ഒരെണ്ണം കൂടി എക്സ്ട്രാ മേടിച്ചോളൂ ഒരു പെയറും കൂടി അതു പല റെയ്റ്റിലുള്ള ഉണ്ട്

കുറഞ്ഞ വിലേൻ്റെ ആണെങ്കിൽ കുറച്ചല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാലെ ഒരു കാര്യം ചെയ്യ് നല്ല വിലയുള്ള ഒരെണ്ണം മേടിക്ക് കുറഞ്ഞ വിലയുള്ള ഒരെണ്ണം മേടിച്ചോളൂ നല്ല വിലയുള്ളത് നമുക്ക് ടൂർണമെൻ്റിനൊക്കെ ഇടാം ഈ രണ്ടും വൈകുന്നേരം അല്ല അതൊരു ഒമ്പത് മണിയാകുമ്പോൾ തീരും രാവിലെതന്നെ

ശനിയാഴ്ച ഒരു ടൂർണമെൻ്റുണ്ട് അപ്പോൾ അത് ഫാമിലിയിൽ പറയണം അപ്പോൾ ലെയ്റ്റായിട്ടെ എത്തുള്ളുയെന്ന് പറയണം പാരെൻ്റ്സ് വേണ്ട ഒമ്പത് മണിക്ക് വിടുമല്ലോ മോളുടെ വീടെവിടെ ആയിരുന്നു അതെവിടെയായിരുന്നു എനിക്ക് ഇവിടെ കറക്ട് സ്ഥലമറിയില്ല ഞാൻ ട്രാൻഫർ ആയി വന്നതാണല്ലോ

കുറേ ഉണ്ടോ ലോങ്ങാണോ ആ അപ്പോൾ ശനിയാഴ്ച എന്നാൽ പാരെൻ്റ്സിനെ വിളിച്ചിട്ട് വന്നാൽ മതി ടൂർണമെൻ്റുണ്ട് അപ്പോൾ ലേറ്റ് ആവും